ഇപ്പോൾ ശരീരഭാഗം ഒക്കെ കൂട്ടാൻ ശ്രമിക്കുന്നവർക്ക് നമ്മുടെ ഗ്രാമത്തിൽ ഒക്കെ പല നാട്ടുവൈദ്യങ്ങളൊക്കെയുണ്ട് കൂടുതൽ ആയുർവേദ കടകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പല അരിഷ്ടങ്ങൾ ഉണ്ടാവും അതുപോലെ ലേഹ്യങ്ങൾ ഉണ്ടാവും അതൊക്കെ കഴിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത്യാവശ്യം നല്ലോണം നമ്മുടെ ശരീരമൊക്കെ വണ്ണം വയ്ക്കാനും പിന്നെ നിറം വെക്കാനൊക്കെ നല്ല ഉപകാര ഉപകാരപ്പെടുന്ന ഉപകാരപ്രദമാണ് പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ മരുത്വാ പഞ്ചജീരകകുടം പിന്നെ കുമാരി കൽപം അങ്ങനെയുള്ളതൊക്കെ പെൺകുട്ടികൾക്കൊക്കെ ശരീര സൗന്ദര്യത്തിനും തടി വെയ്ക്കാനും അങ്ങനുള്ള കാര്യത്തിനൊക്കെ അതൊക്കെ നല്ലതാണ് പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്ലാണ്ട് ഇപ്പോൾ പറയാണെങ്കിൽ നല്ല ഫുഡ് അതായത് നല്ല പയർ പയറുവർഗ്ഗങ്ങൾ പിന്നെ നമ്മൾ സമയത്തിന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ചോറ് കൂടുതലായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതായത് പഴങ്കഞ്ഞി രാവിലെ പഴങ്കഞ്ഞി തലേദിവസത്തെ കഞ്ഞി പിറ്റേദിവസം പഴങ്കഞ്ഞിയിട്ട് തൈരെല്ലാം കൂട്ടി കഴിച്ചാൽ അങ്ങനെ ത തടിവെക്കും പിന്നെന്നു വെച്ചാൽ നമ്മൾ നല്ലോണം നമ്മൾ കൃത്യനിഷ്ടം ആയിട്ടുള്ള ഫുഡ് നല്ലോണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യ ആരോഗ്യപരമായിട്ടുള്ള തടി നമുക്കുണ്ടാക്കാൻ സാധിക്കും